ഇത് റാ റാന്തൽ റെസ്റ്റോറൻറ്റല്ലേ ആ ഞാനൊര് ഓഡറ് തരാൻ വേണ്ടി വിളി വിളിച്ചതായിരുന്നു എനിക്ക് കല്ല് ഉമ്മക്കായ നിറച്ചതും ആ തലശ്ശേരി ബിരിയാണിയും ആണ് വേണ്ടത് ദം ബിരിയാണി അപ്പം നിങ്ങക്കൊരു ഒമ്പത് മണി ആമ്പത്തേക്കും രാത്രി എത്തിക്കാൻ പറ്റുവോ ആ ഞങ്ങളുടെ സ്ഥലം കുറച്ച് ഉള്ളിലോട്ടാണ് ആ പടിയൂര് കുറച്ചുള്ളിലോട്ടായിട്ടാണ് അപ്പം നിങ്ങൾക്കവിടെ എത്താൻ പറ്റുവോന്നൊര് ഡൗട്ടുണ്ട് അപ്പമെന്താണ് ചെയ്യുക ആ നിങ്ങള് ഞങ്ങള് ആ ഞാൻ ലൊക്കേഷനും കൂടെ ഷെയറ് ചെയ്യാം എന്നിട്ടെന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് എന്നെ ഈ നമ്പറില് വിളിച്ചാൽ മതി ആ ആ പിന്നെ വേറെന്തൊക്കെയാണ് അവടുത്തെ സ്പെഷ്യല് ഉള്ളത് ആ വേറെന്തെങ്കിലുവൊക്കെ ഉണ്ടെങ്കില് ഒന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു

ആ അപ്പം നിങ്ങ് ഏ ഏ എത്രയാവും അഡ്വാൻസായിട്ട് എന്തെങ്കിലും തരണോ നിങ്ങൾക്ക് ഓഡറ് ചെയ്യുന്നതിനു മുന്നെ

ആ ഞങ്ങൾ ഇതൊരു ആ അഞ്ച് പേർക്കുള്ള ഫുഡാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പം കല്ലുമ്മക്കാ കല്ലുമ്മക്കായ നിറച്ചത് ഒരൂ പത്തെണ്ണം വേണ്ടി വരുവായിരിക്കും ആ ആ ദം ബിരിയാണി അഞ്ച് പേർക്കുള്ളത് ആ അപ്പോൾ ഇത് ആ ഇത്രേയൊള്ളു എന്നാൽ എന്നാൽ ശരി

ആ ഓക്കെ അത് ഞാൻ അ ഓ ആ ആ ഓക്കെ ഓക്കെ ഉം എന്നാൽ ശരി